തോട്ട കൃഷിയില് ഏതെങ്കിലും തരം ബുദ്ധിമുട്ടുകളോ അല്ലെങ്കില് വിളകൾ നശിപ്പിക്കുന്ന കൃമി കീടങ്ങളെയോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നേരിടേണ്ടി വന്നിട്ടൊക്കെയുണ്ട് ഞങ്ങള് എന്ന് പറഞ്ഞാൽ കുടുംബത്തില് ഞങ്ങൾടെ ഉപ്പയാണെങ്കിലും ഉപ്പയും ഉമ്മയൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നവരാണ് പയറാണെങ്കിൽ ത പയറ് അങ്ങനെയുള്ള ഐറ്റംസാണ് പച്ചക്കറി സാധനങ്ങളൊക്കെയാണ് കൃഷി ചെയ്യുന്നത് പിന്നെ ഇഞ്ചി നട്ടിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പയറ് നട്ട സമയത്തൊക്കെ പുഴുകള പുഴുക്കളൊക്കെ വന്ന് പിന്നെ പയറ് നശിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പയറൊക്കെ തിന്ന് പകുതിയൊക്കെ തിന്നിട്ട് ഇങ്ങനെ മുറിച്ച് ഇടാറൊക്കെ ഇണ്ട് അങ്ങനെ ഒരുപാട് നഷ്ടം ഒക്കെ വന്നിട്ടുണ്ട് അതിന് വേറെ ഒരു വ വളത്തിൻ്റെ കടയില് പോയിട്ട് അവിടുന്ന് മരു അതിനുള്ള മരുന്ന് തന്ന് അത് പിന്നെ പിന്നെ അത് പയറിന് അടിച്ചതിനു ശേഷം പിന്നെ പുഴു വന്നിട്ടൊന്നുല്ല അതേപോലെ തന്നെയാണ് ഇഞ്ചിയും ഇഞ്ചി പിന്നെ പന്നി കുത്തിയിട്ടും പിന്നെ കേടുകളൊക്കെയായിരുന്നു കേടുകൾ ഉള്ളതിന് കേടൊക്കെ ആയിരുന്നു ഒരുപാട് കേടുള്ളതായിരുന്നു ഇഞ്ചി ഒക്കെ അങ്ങനെ കേട് ഇല്ലാ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് വേറൊരു മരുന്ന് അങ്ങനെ ഞങ്ങള് വളം ഷോപ്പിൽ പോയിട്ട് മേടിച്ച് അങ്ങനെ അത് അടിച്ചു അതിനുശേഷം അങ്ങനെ കേടുകളൊന്നും വന്നിട്ടില്ല